ഞാൻ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്നുവെച്ചാൽ ഞാൻ ഒരു ബോട്ടിൽ മേടിച്ചായിരുന്നു ഒരു ബോട്ടിൽ അല്ല മൂന്ന് ബോട്ടിൽ മേടിച്ചു ഇപ്പം സ്കൂളുകളിലൊക്കെ സ്റ്റീൽ ബോട്ടിൽ മസ്റ്റ് ആക്കിയപ്പം കുട്ടികൾക്കായിട്ട് ഞാൻ മൂന്ന് ബോട്ടിൽ മേടിച്ചു അപ്പം നമുക്ക് നല്ല ഓഫറിലൊക്കെ ഓഫറിലൊക്കെയാണത് കിട്ടിയതും അങ്ങനെ സബ്പ്രോഡക്റ്റ് ഒക്കെ വന്നു വന്ന് ഞാൻ ക്യാഷ് ഒക്കെ കൊടുത്തു ക്യാഷ് കൊടുത്തതിനുശേഷം പിന്നെ ഇത് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല വെയ്റ്റ് ഒന്നുമില്ല അപ്പം ഇപ്പം വെ വെള്ളം കൊണ്ടുപോയാലും അവർക്ക് അത് ക്യാരി ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കണ്ടിട്ട് പക്ഷേ ഇതിൻ്റെ ടോപ് പോർഷൻ അതായത് മുകളിലത്തെ ഭാഗം എന്ന് വെച്ചാൽ വെറും ഒരു ക്വാളിറ്റി ഇല്ലാത്ത എന്തോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചായിരുന്നു ചെയ്തിരുന്നത് അതായത് നമ്മളിത് ടൈറ്റ് ചെയ്യുമ്പോൾ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരുമാതിരി പൊടിഞ്ഞ് പപ്പടം പൊടിയുന്ന കണക്ക് ആ മുകളിലത്തെ സാധനം ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞിങ്ങ് പോരുവായിരുന്നു അതായത് ആദ്യം ഒന്ന് പൊട്ടി പിന്നെ പിന്നെ പൊട്ടി പൊട്ടി പൊട്ടി അതായത് ഈ പൊട്ടുന്നതിലൂടെ വെള്ളം ലീക്ക് ചെയ്യും അതായത് നമുക്ക് ജസ്റ്റ് ഇത് കാഴ്ച്ചയ്ക്ക് കൊള്ളാം അല്ലാതെ നമുക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തേയില്ലായിരുന്നു അങ്ങനെ വളരെ വളരെ മോശമായിരുന്നു എനിക്ക് വളരെ നഷ്ടമായിപ്പോയി ഞാനിത് കണ്ടിട്ട് ഓഫറിൽ കിട്ടിയതാണല്ലോ എന്നുവെച്ച് ഞാൻ മൂന്നെണ്ണവും കൂടിയും അങ്ങ് മേടിക്കുകയും ചെയ്തു മേടിച്ചിട്ട് വന്നതിൽ ഒരു ദിവസം പോലും അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം ഫസ്റ്റ് ഡേ തന്നെ ചൂടുവെള്ളം വെച്ച് ഞങ്ങൾ ഇങ്ങനെ കഴുകിയൊക്കെ നോക്കി കഴുകി നോക്കി ഒരെണ്ണം അടപ്പ് ടൈറ്റ് ആക്കിയപ്പോൾ അടപ്പ് പൊട്ടി അപ്പം തന്നെ പൊട്ടി എന്നുവെച്ചാൽ സാധാരണ ഭയങ്കര ശക്തി പ്രയോഗിച്ചൊന്നും നമ്മൾ ചെയ്യുവല്ലായിരുന്നു സാധാരണ രീതിയിൽ തന്നെ ബോട്ടിൽ അടച്ചപ്പോഴേക്കും അത് പൊട്ടി അത് പൊട്ടിക്കഴിഞ്ഞപ്പം തൊട്ട് അത് ലീക്ക് ചെയ്യാൻ തുടങ്ങി പിന്ന മറ്റേത് നമ്മളിപ്പം ടൈറ്റ് ആക്കിയില്ലെങ്കിൽ വെള്ളം ലീക്ക് ആകും പക്ഷേ ടൈറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് പൊട്ടി പോവും പൊട്ടി പോയിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷേ അടപ്പില്ലാതെ താഴത്തെ പോർഷൻ നല്ല സൂപ്പർ ആയിരുന്നു കാരണം വേറെ പ്രശ്നം ഒന്നുമില്ല ഈ അടപ്പിൽ മാത്രം എന്താണ് അവർ ഇങ്ങനെ കാണിച്ചത് എന്നറിയത്തില്ല അപ്പം ഞാൻ അപ്പോഴും പറഞ്ഞു ഈ ഓൺലൈനിലൊന്നും ഒരു സാധനവും മേടിക്കരുത് കാരണം നമ്മളിപ്പം മൂന്നെണ്ണം ഒക്കെ ഒന്നിച്ച് മേടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലാഭം കിട്ടട്ടേ എന്നാണ് മേടിച്ചത് പക്ഷേ ഭയങ്കര അബദ്ധമായിപോയി മൂന്നും മൂന്നും കൊള്ളാത്ത സാധനങ്ങളായിരുന്നു വളരെ നഷ്ടമായിപ്പോയി